ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെയാണെങ്കിൽ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് അവർക്ക് കൃഷി മികവോടെ ചെയ്യാൻ പറ്റും കാരണം അവര് നമ്മുടെ കേരളത്തിലേക്കൊക്കെ വന്നിട്ട് കുടിയേറിയിട്ട് തന്നെ കുറേ വർഷങ്ങളൊക്കെയായവർക്ക് നമ്മുടെ കൃഷിരീതികളും അവ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതെന്നും അതുപോലെ പണി ഏത് രീതിക്ക് എടുക്കണമെന്നൊക്കെയുള്ള നല്ല അവബോധമുള്ള ആൾക്കാരാണ് ഇപ്പോള് നമ്മുടെ കേരളത്തില് നിൽക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികള് അപ്പോള് അതുകൊണ്ട് അവർക്ക് നല്ല രീതിയില് കൃഷിപ്പണി ചെയ്യാനുള്ള ഒരു ബോധ്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ തന്നെയുമല്ല അവര് നമ്മുടെ കേരളീയരെ സംബന്ധിച്ച് നമ്മള് താരതമ്യപ്പെടുത്തുകയാണെങ്കില് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അവര് കൂടിയ രീതിയിലുള്ള കൂലിയൊന്നും വാങ്ങുന്നില്ല അപ്പോള് അതുകൊണ്ട് താരതമ്യേന ഇപ്പോൾ നമ്മുടെ കേരളീയര് തൊഴിലിനായിട്ട് കൂടുതൽ ആശ്രയിക്കുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് അപ്പോള് അവര് കൂടുതല് അവരെ നമ്മള് മെച്ചപ്പെട്ട തൊഴിലാളികളാക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടുതൽ ജോലികളിൽ ഉൾപ്പെടുത്തുക അറിയുന്ന നമ്മുടെ കേരളത്തിലെ തന്നെ തൊഴിലാളികള് അവര്ക്ക് പലതരത്തിലുള്ള എന്താണ് ആക്ടിവിറ്റീസ് അതായത് അവരെ അവരുടെ കൂടെ അതായത് നമ്മുടെ കേരളീയരുടെ കൂടെ അന്യസംസ്ഥാന തൊഴിലാളികളെ കൂടെ ഉൾപ്പെടുത്തി നമ്മള് കൃഷി ചെയ്യുന്നതിലൂടെ അവർക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ അവബോധമുണ്ടാക്കുക ആ കൃഷി പണികള് ഏതൊക്കെ രീതിയിലാണ് നടത്തുന്നത് എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കില് ആ കൃഷിയെ നമുക്ക് സക്സസ് ആക്കാം അല്ലെങ്കിൽ നല്ലയൊരു കൃഷിഫലം നമുക്ക് ലഭ്യമാക്കാമെന്നുള്ള ഒരു അവബോധവും പിന്നെ ചെയ്യുന്ന തൊഴിലിനോടുള്ള ഒരു ആത്മാർഥതയും അവർക്കുണ്ടാവുകയും അവര് നല്ല രീതിയില് ആ തൊഴിൽ ചെയ്യുകയും ചെയ്യുമെന്നാണ് എൻ്റെയൊരു അഭിപ്രായമെന്ന് പറയുന്നത് ഇപ്പോള് കൂടുതലായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് നമ്മള് പല കൃഷിക്കും വേണ്ടി ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളുമാണ് അവരെ നമ്മള് കൂടുതലായിട്ട് നമ്മുടെ തൊഴിലിടങ്ങളില് ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു സാധ്യത നിലനിൽക്കുന്നത് അവർക്ക് അവര് കുറേ നാളുകളായി നമ്മുടെ കേരളത്തിലുടനീളം ഓരോ സ്ഥാപനങ്ങളിലും കൃഷിയിടങ്ങളിലുമൊക്കെ പണിയെടുക്കുന്നത് കൊണ്ട് അവർ വളരെയധികം അതിനെക്കുറിച്ച് അറിവുള്ളവരാണ് അപ്പോള് അതുകൊണ്ട് അവർക്ക് നമ്മുടെ കേരളത്തിലുള്ള മലയാളികളെക്കാളും കൂടുതല് നല്ല രീതിയില് അവരുടെ വർക്കുകള് കംപ്ലീറ്റ് ആക്കാനുമൊക്കെ സാധിക്കുന്നു അപ്പോള് അതുപോലെ തന്നെ ഈ കൂലിയെന്ന് പറയുന്നതും വളരെ പ്രാധാന്യമര്ഹിക്കുന്ന ഒന്നാണ് അവരൊരു തുച്ഛമായ തുച്ഛമായതല്ല അവരുടെ ആവശ്യത്തിനുള്ള ഒരു കൂലി മാത്രം കൂലി നമ്മുടെ കേരളത്തിലെ ഓരോ കർഷകനും കൂലി കുറവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നാണ് എൻ്റെയൊരു വിശ്വാസം അപ്പോള് അതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ കൂടുതൽ കൃഷിപ്പണി ഏൽപ്പിച്ച് നമ്മുടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോരുത്തരും ഇഷ്ടപ്പെടും